ഞങ്ങളുടെ നാട്ടില് മതവും ജാതിയും ഒന്നും നോക്കാതെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഓണം ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഉത്സവമാണത് കുറേ കളികളും അതേപോലെ കൂട്ടുകാരൊക്കെയുണ്ടെങ്കിൽ അവരുടെ വീട്ടിലൊക്കെ പോകാം അവിടെ പോയി കളിക്കുക അതേപോലെ വടംവലി അതേപോലെ കലം തല്ലി പൊട്ടിക്കല് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകാം അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഈ ഓണത്തിനുണ്ടാവുക അതേപോലെ പൂക്കൾ ഇടൽ ഉണ്ടാവലുണ്ട് ഈ പൂക്കളം ഇടലെന്ന് പറഞ്ഞാല് ഒരു മത്സരമായിട്ടൊക്കെ നടത്താറുണ്ട് അവിടെ പിന്നതേപോലെ സ്പൂണ് വായില് പിടിച്ചിട്ട് അതിന്മേൽ നാരങ്ങ വെച്ചിട്ട് നാരങ്ങ ഷാടാതെ കൊണ്ടുപോവുക ഇതൊക്കെ ഓണത്തിനുണ്ടാവുന്ന കളികളാണ് ഓണമെന്ന് പറഞ്ഞാൽ ആരും ജാതിമതങ്ങളൊന്നും നോക്കാതെ ചെയ്യുന്ന ഒരു ഉത്സവമാണ് അതേപോലെ ഹിന്ദുക്കള് ഉത്സവം നടത്താറുണ്ട് അതിന് ജാതിയോ മതമോ നോക്കാതെ എല്ലാവരും അതില് പോയി പങ്കെടുക്കാറുണ്ട് പോയാല് അവിടെ കുറേ പരിപാടികളുണ്ടാവും ചെണ്ടമുട്ട് അതേപോലെ പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടാവലുണ്ട് ഭയങ്കര രസമാണ് ഈ പടക്കം പൊട്ടുന്നത് കാണാന് ആകാശത്ത് പോയിട്ട് പൊട്ടിക്കൊണ്ട് കുറേ കളറുള്ള കുറേ തീയൊക്ക അതിനകത്തുനിന്നൊക്കെ ചാടുകയൊക്കെ ചെയ്യും എന്നിട്ട് അത് കാണാനായിട്ട് എല്ലാവരും പോകാറുണ്ട് പിന്നെ സ്റ്റേജ് പരിപാടികളെക്കാണ്ട് കുറെയുണ്ടാവാറുണ്ട് ആ സ്റ്റേജ് പരിപാടികളില് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പോകാറുണ്ട് അവിടത്തെ കുറേ ഡാൻസും പാട്ടും അതേപോലെ ഗാനമേള ഗ്രൂപ്പുകളും ഒക്കെ വരലുണ്ട് പിന്നെ പെരുന്നാളും ഇതേപോലത്തെ ഒരു പരുപാടി തന്നെയാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് എല്ലാവരും വീട്ടിലൊക്കെ പോയി ഫുഡ്ഡൊക്കെ കൊടുക്കും എന്നിട്ട് എല്ലാവരുടെ വീട്ടിലൊക്കെ പോയി കണ്ട് ഒന്ന് കണ്ട് സംസാരിച്ച് അവിടെ പോയി സുഖ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാരും വരുന്നൊരു പരിപാടിയാണിത്